എനിക്ക് വെള്ളപ്പൊക്കം മൂലം എൻ്റെ കൃഷി നാശം സംഭവിച്ചതിൻ്റെ ഇൻഷുറൻസ് തുക ഇതുവരെ കിട്ടിയിട്ടില്ല അതിൻ്റെ ക്ലൈം കിട്ടാൻ എന്താണ് കാല താമസം എന്നതിന് കുറിച്ച് എനിക്ക് ഡീറ്റെയിൽസ് തരണം എന്താണ് പ്രശ്നം അതിൻ്റെ പ്രോസസ്സിങ്ങിനോ അല്ലെങ്കിലതിൻ്റെ എന്തെങ്കിലും പ്രശ് പ്രശ്നത്തിലോ തടഞ്ഞുകിടക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് വിവരം തരണമെന്ന് ഞാൻ ദയവായി അഭ്യർത്ഥിക്കുന്നു കാരണം ഒരുപാട് ലേയ്റ്റായി ഇപ്പോൾ തന്നെ